തീർച്ചയായും ശരിയാണ് ഓൺലൈൻ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയണത് നമ്മുടെ കുട്ടികളെ ഒരുപാട് എന്താപറയുക ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് നല്ല രീതിയിലായിക്കോട്ടെ മോശം രീതിയിലായിക്കോട്ടെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് കാലത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും വീടുകളിലിരുന്ന് പൊതുവേ എല്ലവർക്കും അവരുടെ ജോലി സ്ഥലങ്ങളിലോട്ട് പോകാനാകാതെ വീടുകളിൽ നിന്നും ജോലി ചെയ്യുകയാണ് അതുപോലതന്നെ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കാതെ വീടുകളിലിരുന്ന് സ്മാർട്ട് ഫോണുകൾ വഴി ക്ലാസ്സുകൾ കണ്ടും മറ്റ് നോട്ടുകളെഴുതിയുമാണവർ ആ ഒരു അദ്ധ്യയന വർഷം നീക്കിക്കൊണ്ട് പോയിരുന്നത് അതിൻ്റെ ഒരു ഫലമായിട്ട് ഒരുപാട് ദുശ്ശീലങ്ങൾ കുട്ടികളില് വരാൻ സാധ്യത ഒരുപാട് വരാൻ വന്നു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു എന്ന് പറയാം ഫോണില് അമിതമായ ഉപയോഗം ഫോണിൽ ഗെയിമും മറ്റ് കാര്യങ്ങളും നമുക്ക് കുട്ടികളായിക്കോട്ടെ അവർക്കറിയില്ല നല്ലതെന്ത് അല്ലെങ്കിൽ മോശമെന്ത് എന്ന് പറ അവർക്ക് അറിയില്ല അപ്പോൾ വേണ്ടതും വേണ്ടാത്തതും പല കാര്യങ്ങളും അവര് ഏർപ്പെടുകയാണ് അങ്ങനെ ഒരുപാട് ഫോണിലൂടെയുള്ള എന്താ പറയുക അഡിക്ഷൻ കൂടി വരികയാണ് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഫോൺ അഡിക്ടായി മാറുകയാണ് പിന്നീട് ഫോൺ ഫോൺ മാതാപിതാക്കൾ അവർക്ക് കൊടുക്കാതെയാവുമ്പോൾ പിന്നീടവർ ഓരോ എന്താ പറയുക ആത്മഹത്യ ഭീഷണി അങ്ങനെ ഒരുപാട് അവർ തെറ്റുകളിലോട്ട് പിന്നെ ചെയ്യുകയാണ് നമ്മുടെ കുട്ടികൾ പൊതുവേ ഈ ഒരു തലമുറയിൽപ്പെട്ട കുട്ടികൾക്കധികം ഒരു എന്താ പറയുക ഒരു സ്റ്റേയിബിളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കോൺസ്റ്റന്റായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു മനസ്സിനത്ര കരുത്തില്ല പെട്ടന്ന് കാര്യങ്ങൾ എന്താ പറയുക അവർ പെട്ടന്ന് അതിനോട് റിയാക്ട് ചെയ്യും കുറച്ചവർക്ക് ഒരു ക്ഷമയോ അല്ലെങ്കിൽ കാര്യങ്ങളോട് പെട്ടന്ന് എടുത്ത് ചാട്ടം കൂടുതലാണ് അതു തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ എന്താ പറയുക സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിനു തന്നെ ഒരു രീതി തന്നെ മാറിയിരിക്കുകയാണ് ഓൺലൈനായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്നു നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസുകൾ വീണ്ടും ആവർത്തിച്ച് കേൾക്കാൻ സാധിക്കും നോട്ടുകൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എഴുതിയെടുക്കാൻ സാധിക്കും സ്കൂളികളിൽ പോകുന്ന പോലെ നമുക്ക് നമ്മളെ നിർബന്ധിച്ച് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ പഠിക്കണം എന്നൊരു നിബന്ധന ഒന്നും ഇല്ല അങ്ങനെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഒട്ടേറെ മേന്മകളുണ്ട് എന്നാൽ അതേ സമയം നമ്മുടെ കുട്ടികൾ ആ ഓൺലൈനിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ കുട്ടികൾ അവിടെ വീടുകളിൽ നാലു ചുമരിനുള്ളിൽ അവരുടെ ഒതുങ്ങപ്പെടുകയാണ് ഒരുപാട് സൈബർ ആക്രമങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഫെയ്ക്ക് ന്യൂസുകളും മറ്റും ഫെയിക്കായിട്ടുള്ള പല കാര്യങ്ങളിലും കുട്ടികൾ ആകൃഷ്ടയായി ആകൃഷ്ട ഒരുപാട് തെറ്റുകൾ ചെയ്തു വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് അതുപോലെതന്നെ ഒരുപാട് ദോഷങ്ങളും ഉണ്ട് മാതാപിതാക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളെ ശ്രദ്ധിക്കണം അവർ ക്ലാസ് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ എന്താണ് ഫോണിൽ ഉപയോഗിക്കുന്നത് എന്ന് അവരെ ഒന്ന് അവരെ അവരുടെ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് ഒരു അച്ഛൻ അമ്മ എന്നതിലുപരി നല്ല സുഹൃത്തായി അവരോട് പെരുമാറുക കാര്യങ്ങൾ ചോദിച്ചറിയിയുക പറഞ്ഞറിയുക അങ്ങനെയൊരു നല്ല സുഹൃത്താവുമ്പോൾ അവർ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും പങ്കുവെയ്ക്കും അങ്ങനെ അവരുടെ ആ ഒരു ഫോണിനോടുള്ള അവരുടെ ആ ഒരു അഡിക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും